ഹലോ ഇത് സൂര്യ ഗ്യാസ് എജെന്സ്സിയാണോ എന്റെ പേര് റ്റിന്സി ഞാന് കരുവാറ്റയില്നിന്നാണ് വിളിക്കുന്നത് ഞാന് ഗ്യാസിനുവേണ്ടി ബുക്കിയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ എത്തിയില്ല എനിക്കത്യാവശ്യമായിട്ട് എന്റെ വീട്ടില് ഒരു കല്യാണ ഫങ്ങ്ഷന് നടക്കാനുണ്ട് അപ്പോള് എനിക്കത്യാവശ്യമായിട്ടൊന്ന് ഗ്യാസ് വേണമായിരുന്നു എന്ന് കൊണ്ടുവരുമെന്ന് അറിയാന് വേണ്ടിയിട്ടായിരിന്നു ഓക്കെ എന്റെ റെഫറന്സ്സ് ഗ്യാസ് റെഫറന്സ് നമ്പര് ലാസ്റ്റ് ഡിജിറ്റ് പറഞ്ഞാല്പ്പോരേ ഓക്കെ ഫുള്ള് പറയാം പൂജ്യം എട്ട് മൂന്ന് ആറ് പൂജ്യം പൂജ്യം പൂജ്യം നാല് മൂന്ന് ഏഴ് അഞ്ച് ആധാര് നമ്പര് വേണോ ഓക്കെ ആധാറിന്റെ ലാസ്റ്റ് നമ്പര് ആറ് എട്ട് മൂന്ന് മൂന്നേ എപ്പോഴത്തേക്ക് കൊണ്ടുവരും വെള്ളിയാഴ്ച്ചത്തേക്കിനോ ശനിയാഴ്ച്ചയാണ് എനിക്ക് പരിപാടിയുള്ളത് അപ്പോള് വെള്ളിയാഴ്ചയെങ്കിലും എനിക്ക് കിട്ടണം വെള്ളിയാഴ്ച കിട്ടിയാല്പോരാ അതിനുമുന്പേ കിട്ടുന്നുണ്ടെങ്കില് അത്രയും നല്ലതായിരുന്നു ഒരുകാരണവശാലും വെള്ളിയാഴ്ചയ്ക്കപ്പുറം പോകരുത് ശനിയാഴ്ചയാണ് എനിക്ക് പരിപാടിയുള്ളത് അപ്പോള് വെള്ളിയാഴ്ച രാവിലത്തേക്കിന് എത്തുകയില്ലേ രാവിലത്തേക്കിനെങ്കിലും വേണം എന്നാലെ എനിക്ക് പരിപാടിക്ക് വേണ്ടി അറേഞ്ചെയ്യാന് പറ്റത്തുള്ളു ഉറപ്പാണല്ലോ അല്ലേ കൊണ്ടുവരുമല്ലോ വരുമ്പോഴത്തേനും ഈ നമ്പറിലെന്നെ തിരിച്ച് കോള് ചെയ്താല്മതിയേ